വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് മാനന്തവാടിയിലെ വള്ളിയൂർക്കാവ് ഉത്സവമാണ് അത് വയനാട് ജില്ലേന്റെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് അതുപോലെതന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചെടുത്തോളം പള്ളിക്കുന്ന് മാതാവിന്റെ പെരുന്നാൾ അത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല വയനാട് ജില്ലയും തൊട്ടടുത്ത ജില്ലകളിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുത്തുകൊണ്ട് വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്ന വലിയ പെരുന്നാളുകളിലൊന്നാണ് പ്രധാനപ്പെട്ട പെരുന്നാളിൽ ഒന്നാണ് പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാൾ അതുപോലെത്തന്നെ ബത്തേരിയിൽ ഗണപതി അമ്പലത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഉത്സവം ബത്തേരി പ്രധാനപ്പെട്ട ഈ പ്രദേശത്തിന്റെ എല്ലാ വിശ്വാസികളെയും ചേർത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഉത്സവങ്ങളിലൊന്നാണ് ഗണപതിവട്ടത്തിലെ ഉത്സവം